എന്റെ ഏറ്റവും വലിയ ശക്തിയും ബലഹീനതയും എന്ന് പറയുന്നതും ഒന്ന് എന്റെ പേരെന്റ്സും പിന്നെ എന്റെ ഭർത്താവുമാണ് ഹസ്ബന്റുമാണ് വിവാഹത്തിന് മുന്നേ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നിരുന്നത് എന്റെ പേരെന്റ്സ് ആണ് എന്റെ അത് അതുകൊണ്ടുതന്നെയാണ് ആ ഒരു ആഗ്രഹമാണ് എന്നെ മാരേജിലേക്ക് എത്തിച്ചത് എന്റെ ഒരു ലവ് മാരേജ് ആയിരുന്നു അതും അവരത് നടത്തിത്തന്നു ഇപ്പം ഹസ്ബന്റ് ആണെങ്കിൽ തന്നെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരും കൂടെയുണ്ടെങ്കിൽ നല്ലൊരു ഒരു ഒരു ഒരു ശക്തിയെന്നു തന്നെ പറയാം എന്ത് ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരാനും എവിടെ പോകണമെങ്കിലും എല്ലാം നടത്തിത്തരുന്നത് ഹസ്ബന്റ് ആണ് ഇപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും പുള്ളിനോട് എല്ലാം തുറന്നു പറഞ്ഞാൽ ഒരു നല്ലൊരു ആശ്വാസമാണ് അതിന് സപ്പോർട്ട് ആയിട്ട് നിൽക്കും എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കും കുഴപ്പമില്ല സാരമില്ല ഞാനില്ലേ കൂടെ അങ്ങനെ എല്ലാം ഓരോ ആശ്വാസവാക്കുകൾ പറയും എന്തിനും കൂടെയുണ്ട് നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് നമുക്കെന്തും തുറന്നു പറയാം നല്ല ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട് ആയതിനുശേഷം ആണ് ഇങ്ങനെ ലൗവിലേക്കൊക്കെ പോയതും അതുകൊണ്ട് ഞാൻ ഒരു മടിയില്ലാതെ എന്തു കാര്യവും തുറന്നു പറയാനും എനിക്ക് കഴിയുന്നുണ്ട്